ഇന്ത്യയിലെ ആളുകൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട മത കേന്ദ്രങ്ങൾ ധാരാളമായി ഇവ തന്നെയാണ് ആയതിനാൽ തന്നെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ മുസ്ലിംസ് അവർക്കെല്ലാം തന്നെ ഓരോ തര വിവിധ തരമുള്ള ആചാരങ്ങളും അനുഷ്ടാനങ്ങളും അവർക്ക് അവരുടേതായ തന്നെ രീതിയിലുള്ള മതബോധന കേന്ദ്രങ്ങളും മത ആചാരങ്ങളും ഉള്ളതാണ് ഞാനൊരു ക്രിസ്ത്യാനിയായതിനാൽ തന്നെ എൻ്റെ ചർച്ചിൽ എൻ്റെ പള്ളി നടത്തുന്ന ആചാരങ്ങളും കാര്യങ്ങളും എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ലതു പോലെ അറിയാം അതുപോലെ തന്നെ പള്ളിയുടെ ആചാരങ്ങളെന്നു പറയുമ്പോൾ അ ആഘോഷങ്ങളായിട്ടു നമുക്ക് പറയാനുള്ളത് പള്ളികൾ നടത്തുന്ന പള്ളി പെരുന്നാളുകൾ കൺവെഷനുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിലൂടെ തന്നെ ധാരാളമായി ഭക്ത ജനങ്ങൾ വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ തീർത്ഥാടനകേന്ദ്രങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിലും മുസ്ലീംസിൻ്റെ കാര്യമാണെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ കുറേ ഉത്സവങ്ങൾ പെരുന്നാളുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഇത് ഇതിൽ തന്നെ നമുക്ക് പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ തന്നെ ഈ ആചാരങ്ങളും അനുഷ്ടാനങ്ങളെല്ലാം പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടു തന്നെയാണ് ആൾക്കാരെല്ലാം ചെയ്യുന്നത് ആൾക്കാരെ എല്ലാം ഒന്നിച്ച് കൂട്ടാനും ഒ ഒറ്റക്കെട്ടായി ജീവിക്കാനും ഒരു സമൂഹത്തിൻറ്റേതായ എല്ലാ രീതികളും ഇതിൽ വരാനും ഒരു മതത്തിനു സാധിക്കുന്നു എന്നതിൽ ഉള്ളതിന് തെളിവായിട്ടു നമുക്കെടുക്കാവുന്നതാണ്